യാത്രകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവം എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ് അതുപോലെ എനിക്കും യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പ്രകൃതി രമണീയമായ സ്ഥാലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ഥലമാണ് കാണേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കും അപ്പോൾ നെല്ലിയാമ്പതി മൂന്നാർ വാഗമൺ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റും പോകാനായിട്ടും ഇഷ്ടമാണ് പിന്നെ നമുക്ക് അല്ലാതെ നമ്മുടെ ദൈനം ദിന ജീവിതത്തിലും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ഇപ്പം ഒരു മാര്യേജ് ഫങ്ങ്ഷൻ വന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് മറ്റൊരു സ്റ്റേറ്റിലേക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു രസമു ള്ള കാര്യമാണ് അവടത്തെ ആളുകളേയും അവിടുത്തെ ഭക്ഷണം ഭക്ഷണ സാഹചര്യം ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ വിനോദത്തിന് വേണ്ടി നമ്മൾ പോകാറുണ്ടല്ലോ ഒരു ട്രിപ്പൊക്കെ ഫാമിലിയിൽ നിന്നൊരു ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയും പോവാറുണ്ട് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ ജോലി സംബന്ധമായിട്ട് ആളുകൾ യാത്ര ചെയ്യാറുണ്ട് ഈ യാത്ര എന്ന് പറയുമ്പം തന്നെ നമ്മുടെ അനുഭവമാണല്ലോ ജീവിതത്തിൽ ആ സമ്മർദ്ദമൊക്കെ കുറക്കാൻ സാധിക്കും പിന്നെ തമിഴ്നാട് അങ്ങനെ അന്യ സ്റ്റേറ്റ്കളിലേക്ക് ഒക്കെ പോവണമെങ്കിൽ അവിടുത്തെ സംസ്കാരവും കലകളും ഉത്സവങ്ങൾ അങ്ങനെ ഒക്കെ ഉള്ള പാചക രീതിയും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഓരോ അവധിക്കാലം കിട്ടുമ്പോഴും യാത്ര ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ചും അയൽ ജില്ലയിലേക്കും ഒക്കെ പോകാനാണ് ഇഷ്ടം അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരവും സംസാര രീതി ഭക്ഷണം സംസ്കാരം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും പിന്നെ ഡെയിലി നമ്മൾ ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് അതും ഇപ്പം ഞാൻ ഒരു അദ്ധ്യാപികയാണ് ഞാൻ സ്കൂൾ ബസ്സിനാണ് ദിവസം പോകുന്നത് എനിക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ട്രാവലിങ്ങ് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങനെ പോകുന്ന പല നാട്ടിൻപുറത്തുകൾ പല സ്ഥലങ്ങളിലൂടെ ഒക്കെ പോകാം അവിടെ ഒക്കെ നാം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനും നല്ല രസമാണ് ഞാൻ അത് ആസ്വദിച്ച് കൊണ്ടാണ് യാത്രകളൊക്കെ ചെയ്യുന്നത് തന്നെ